ഞങ്ങളുടെ ട്രെയിൻ യാത്രയെന്ന് പറയുന്നത് കാശ്മീർ പോകാനാണ് പർവ്വതങ്ങൾ കാണാൻ ഞാനെന്റെ ജീവിതത്തിൽ ഇതുവരെ ഒരു പർവ്വതം കണ്ടട്ടില്ല എനിക്കൊരു നാല് ഫ്രെണ്ട്സുണ്ട് രേഷ്മ തെരേസ് അഭിനവ് നതാപി ഞാൻ ഇവരുടെ കൂടെ പോകാനാണ് ആഗ്രഹിക്കുന്നത് കാരണം ഞങ്ങളുടെ നാല് പേരുടേയും ഡ്രീമാണ് കാശ്മീർ പോകണം എന്നുള്ളത് ഞാനേറ്റവും കൂടുതൽ എന്റെ ജീവിതത്തിൽ ആഗ്രഹിക്കുന്നതാണ് കാശ്മീർ പോകണം ഈ നാലു പേരുടെ കൂടെ പോകണമെന്നുള്ളത് ഞങ്ങളെല്ലാവരും സ്വപ്നം കാണുന്നതാണ് ഒരു അഞ്ചു ദിവസത്തെ യാത്ര ട്രെയിനിന് ഇവിടെ നിന്ന് കയറി അവിടെ ചെല്ലുക ദെൻ അവിടുത്തെ കുറേ സ്ഥലങ്ങൾ കാണുക ഞങ്ങൾ ലിസ്റ്റൌട്ട് ചെയ്ത് വച്ച കുറേ സ്ഥലങ്ങളുണ്ട് അത് മുഴുവൻ കാണുക എന്നുള്ളത് പിന്നെ ഞങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ് കടൽ കാണാൻ പോകുകയെന്നുള്ളത് ആലപ്പുഴയിലുണ്ട് അതേപോലെ തന്നെ ഞങ്ങൾക്ക് മുംബൈയിൽ മുംബൈ കടൽത്തീരത്ത് പോകണം എന്ന് വളരെ ആഗ്രഹമാണ് പിന്നെ മധുരമീനാക്ഷി ക്ഷേത്രം ഗുരുവായൂർ കുടജാത്രി ഇവിടെയെല്ലാം പോകണം എന്ന് ഒരുപാട് ആഗ്രഹമുള്ളതാണ് ഞങ്ങൾക്ക് എനിക്കൊറ്റയ്ക്ക് യാത്ര പോവാൻ ഇഷ്ടമല്ല കാരണമെനിക്ക് കാണുന്ന കാര്യങ്ങൾ എന്റെ ഫ്രണ്ട്സിന്റെ കൂടെ കാണാനാണ് താൽപര്യം അതേപോലെ എനിക്കേറ്റവും കാണാൻ ഇഷ്ടമുള്ളൊരു കാര്യം സൺറൈസോ സൺസെറ്റോ ആണ് ഈ പറഞ്ഞ സ്ഥലത്തൊക്കെയാണ് ഞാൻ പോകാൻ ആഗ്രഹിക്കുന്നത്